ഞാൻ അതുങ്ങൾക്ക് സാധാരണ കടകളിൽ പോയാണ് തുണികൾ വാങ്ങാറുള്ളത് പക്ഷേ ഓൺലൈൻ വഴി ഞാൻ ബുക്ക് ചെയ്തപ്പോഴത്തേക്കിന് എനിക്കത് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു നല്ല ഇത് പു കണ്ടിട്ടു തന്നെ എനിക്ക് നല്ല രസം തോന്നി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷേ കുഴപ്പമില്ല നമ്മുടെ തുണികൾക്കാ നമ്മുടെ സാധാരണ കടകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ എത്ര പ്രാവശ്യം നോക്കിയാലും നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പ് കിട്ടാനായിട്ട് പറ്റുന്നത് പക്ഷേ ഇത് കുഴപ്പമില്ല ഇതു നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തപ്പോഴത്തേക്കിന് നമുക്കാ പാ കണ്ടു വീട്ടിൽ കൊണ്ട് തന്നപ്പോളേ നമുക്കത് നല്ല ഇണക്കമായിരുന്നു കാരണം അത് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടി വന്നില്ല കാരണം വെച്ചാലത് നല്ല കറക്റ്റ് ഉള്ള ഒരു ഇതായിരുന്നു പിന്നെ നമ്മൾ ക്യാഷ് റെഡിയായിട്ടു നമ്മൾ അങ്ങ് കൊടുക്കുമായിരുന്നു പിന്നെ അതു വലിയ കുഴപ്പമില്ല പക്ഷെ കാണാനും ഭംഗിയുണ്ട് നമുക്ക് ഒരു മെച്യൂരിറ്റി ഉണ്ടായിരുന്നു എന്താ പറയുക നമ്മൾ സാധാരണ കടകളിൽ പോയി എടുക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ഒരു കൊള്ളാം ഇനി ഇത് ഇങ്ങനെ തന്നെ എടുക്കുന്നതാണ് നല്ലത് കടകളിൽ പോയി നമ്മളെത്ര നേരം പോയി ബുദ്ധിമുട്ടണം എന്നൊക്കെയുള്ളൊരു ഇത് ഫീലിംഗ് നമുക്കുണ്ടായിരുന്നു ഒരു കടകളിൽ കയറി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ അടുത്ത കടകളിൽ കയറണം അങ്ങനെയുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇത് പക്ഷേ അങ്ങനെയുള്ളതൊന്നും വന്നില്ല നമുക്ക് കണ്ടപ്പോളേ നമ്മൾ ബുക്ക് ചെയ്തു സാധനം മൂന്നാലു ദിവസത്തിനുള്ളിൽ വീട്ടിൽ വരികയും ചെയ്തു നമ്മുടെ മനസ്സിനിണങ്ങിയ ഒരു ഡ്രസ്സ് നമുക്ക് കിട്ടുകയും ചെയ്തു